ഇപ്പോൾ സ്റ്റേജിൽ കയറി പാട്ടുപാടുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യം ഇപ്പോൾ മറ്റുള്ളവരെ എങ്ങനെ ഫെയ്സ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്കങ്ങനെ ഒരു സ്റ്റേജിൽ കയറിയാൽ വിറയ്ക്കാൻ തുടങ്ങും ഇങ്ങനെ കയ്യും കാലുമൊക്കെ വിറച്ച് ഭയങ്കര പരിഭ്രമമായിരുന്നു ഞാൻ ഇതിനെ ഓവർക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിനെ ഭയങ്കര ഒരു ധൈര്യം നൽകി സ്റ്റേജിൽ കയറി നമ്മൾ സ്റ്റേജിൽ ഉള്ള ഓഡിയൻസിനെ നോക്കാതെ നമ്മൾ ഇപ്പോൾ നമ്മൾ പാട്ടു പാടുക എങ്കിൽ ആ പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മൾ സ്റ്റേജിലോട്ട് നോക്കേണ്ട ഒരു സ്റ്റേഡിയത്തിലെ മുമ്പിലിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു അവരെ ശ്രദ്ധിക്കാതെ നമ്മൾ പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ആ താളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ പാടുക അതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് നമ്മൾ ഓഡിയൻസിനെ ശ്രദ്ധിക്കാതെ അവരുടെ ഭാവങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മളെ രീതിയില് നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി പാടിക്കൊണ്ടിരിക്കുക നമ്മൾ മൈക്കിനെ മുറുകെപ്പിടിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു നമ്മളെ പാട്ടിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളെ താളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു നമ്മൾ പാടുന്നു പാടണം അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്